ഞാന് കൃഷി ചെയ്യുമ്പോള് പാട്ടൊക്കെ പാട്യോണ്ട് ഉല്ലസിച്ചാണ്ടങ്ട്ട് ചെയ്യല് അങ്ങനെ പാട്ട് പാടുന്നത് ഞാന് പാടിത്തരണോ വേണ്ടല്ലോ ആ എന്നാ ബാക്കി ഞാന് പറയാം പിന്നേ എന്റെ ഉമ്മച്ചി പ്രസംഗം കേട്ടാണ്ട് ഒരു ഉസ്താദിന്റെ പ്രസംഗം വെക്കും എന്നിട്ട് അത് കേട്ടാണ്ടാണ് കൃഷി ഒക്കെ ചെയ്യല് ഇനി ഇപ്പോള് സ്വയമായിട്ടന്നെ പാട്ട് പാടും അത് നല്ല രസമാണ് പാട്ട് കേള്ക്കാന് പിന്നേ പണ്ടത്തെ കാലത്തൊക്കെ ഓര് ജന്മിമാരെ കീഴിലുള്ള ഭൂമിയില് കൃഷിയേയ്റ്റിരുന്ന കുറേ പണ്ടത്തെ ആള്ക്കാരുണ്ടല്ലോ ഓല് പാട്ട് പാടിനി അത് ഓരുടെ വേദനേം ഒക്കെ കൂട്ടി ചേര്ത്താണ്ടി ഓരെ കഷ്ടതേക്കെ കൂട്ടിച്ചേർത്താണ്ടേനി ഓര് പാട്ട് പാടിയിരിക്കുന്നത് ആ പാട്ട് കേള്ക്കാന് ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു സുഖമാണ് ഓല്ത് കഷ്ടത ഒക്കെ കേട്ടോണ്ടുള്ള പാട്ട് ഓരന്നെ ഉണ്ടാക്കിയാണ്ടുള്ളെ അപ്പോള് കൃഷി ചെയ്യുമ്പോള് ആ വിളകളൊക്കെ നന്നായിട്ട് ഉല്ലസിച്ചാണ്ടായിരിക്കും ഓല് വിള ചെയ്യുക അപ്പോള് അതില്നിന്ന് കിട്ടുന്ന സാധനങ്ങളുടെയൊക്കെ അളവും വര്ധിക്കും ഇങ്ങനൊക്കെയാണ് നമ്മളും പണ്ടത്തെ കാലത്തുള്ള എല്ലാവരുമൊക്കെ കൃഷി ചെയ്തത് പിന്നിപ്പോഴത്തെ കാലത്തെ മോബൈലൊക്കെ ഉണ്ടായതുകൊണ്ട് മൊബൈലില് പ്രസംഗവും പാട്ടൊക്കെ വെച്ചാണ്ടങ്ങട്ട് കൃഷി ചെയ്താല് മതി ആരും പണ്ടത്തെ കാലത്തേക്കങ്ങോട്ട് പോകുന്നില്ല അതൊക്കെയാണ് കൃഷീന്റെ ഇടയ്ലേക്കൂടെയുള്ളൊരു വിനോദം പക്ഷേ പണ്ടത്തെ കാലത്ത് കൃഷി ചെയ്യല് അത് വേറെ ളെനീ അത് നല്ല രസമായിരുന്നു അങ്ങ് ആ പണ്ടത്തെ കാലത്തെ കൃഷിയൊക്കെ ഓലെ വേദനയൊക്കെ പറഞ്ഞോണ്ടുള്ള ആ പാട്ട് ആ പൊളി നല്ല പൊളിയേന് ഇതൊക്കെയാണ് വിനോദം അതിന്റെടേക്കൂടി കൃഷിയില്